കുട്ടുകൾക്കിടയിലെ ഉത്തരവാദിത്തമുള്ള ഗെയിമിംഗ് രീതികൾ എങ്ങനെയാണ് കുട്ടികൾക്കിടയിൽ പലതരം കളികളുണ്ട് ഇപ്പോഴത്തെ പഴയ കാല കളികളുണ്ട് ഇപ്പോഴത്തെ കളികളുണ്ട് ഇപ്പോൾ അധികവും കുട്ടികൾ മൊബൈൽ ഫോണുകളാണ് യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോണിലും പലതരം ഗെയിമുകളാണ് ഡൗൺലോഡ് ചെയ്തു വച്ചിരിക്കെ എനിക്ക് ആ ഗെയിമുകളെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനറിയില്ല എങ്കിലും പുതിയ മോഡേൺ ഗെയിമുകളൊക്കെ എന്നു പറഞ്ഞാൽ ഉത്തരവാദിത്തം എന്ത് ഒരു ഗെയിമാണെങ്കിലും ഒരു ഏത് ഏത് ഗെയിമാണെങ്കിലും അതിനൊരു കൃത്യനിഷ്ഠ വേണം അതിനൊരു ഉത്തരവാദിത്തം വേണം അവ അതിനൊരു സമയം പരിപാലനം വേണം സമയനിഷ്ഠ ഇത്ര സമയത്തിനുള്ളിൽ ഇന്നത് ചെയ്തു തീർക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഓരോ കളികൾ ഓരോ ഗെയിമിൽ നിന്നും കുട്ടികൾക്ക് ലഭ്യമാണ് അത് അനുസരിച്ചാണ് ഓരോ കുട്ടികളും കളികളിൽ ഏർപ്പെടുന്നതും ഓരോ കളികൾ തിരഞ്ഞെടുക്കുന്നതും പലതരം ഇപ്പം ക്രിക്കറ്റ് കളിയാണെങ്കിലും രണ്ട് ടീമും കൂടെ കളിക്കുകയും അതിൽ വിജയികളാകുകയും അപ്പം അതിനെല്ലാം ഒരു സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ അത് ചെയ്തു തീർക്കണം ഫുട്ബോൾ ആയിക്കോട്ടെ വോളിബോള ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ അതൊക്കെ അപ്പം ആ സമയത്തിനുള്ളിൽ അത് തീർക്കുക അപ്പം ജീവിതത്തിലാണെങ്കിലും എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരു പ്രധാനമായിട്ട് ഒരു സമയനിഷ്ട ഉണ്ടായിരിക്കുന്നത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്തിനാണെങ്കിലും നമുക്ക് ഒരു സമയനിഷ്ഠ ഉണ്ടായിരിക്കണം ഇപ്പം ഒരു കളി തുടങ്ങുകയാണെങ്കിൽ ആ കളി കാണാൻ പോകാൻ വേണ്ടി ഇത്ര സമയത്തിനുള്ളിൽ അവിടെ നമ്മൾ കയറുക അല്ലേ ആ ഗാലറിയിൽ കയറുകയും കാണുകയും ചെയ്യുക അപ്പം അത് തുടങ്ങുന്നതിന് മുമ്പേ പോയി ഇരിക്കുക എന്നുള്ളത് നമ്മുടെ നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള കൃത്യനിഷ്ഠയാണ് അപ്പോൾ ഈ ഗെയിമിലൂടെ പല കൃത്യനിഷ്ഠകളും കുട്ടികൾക്ക് കൈവരിക്കാൻ പറ്റും ഗെയിമുകൾ വളരെ ഉപകാരപ്രദമാണ് അവരുടെ ബുദ്ധിയും മനസ്സിനെയും വികസിപ്പിക്കുന്ന മാനസിക ഉല്ലാസങ്ങൾ നൽകുന്ന രീതിയിലെ ഗെയിമുകളാണ് ഉള്ളത് ധാരാളം ഗെയിമുകൾ ഉണ്ട് ഇപ്പം കൂടുതലായിട്ട് ഗെയിമുകളെക്കുറിച്ചു എനിക്ക് അധികമായിട്ട് പറയാൻ അറിയില്ല